ഇപ്പം പഴയ പാട്ടും പുതിയ ഗാനങ്ങളിലുള്ള വ്യത്യാസം എന്നു പറഞ്ഞാൽ പഴയ പാട്ടുകളൊക്കെ ഇപ്പം എന്നും നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നതാണ് പഴയ പാട്ടുകൾ കേൾക്കാനും പിന്നെ അർത്ഥവത്തായ പാട്ടുകളാണ് പഴയ പാട്ടുകളെന്നു പറഞ്ഞാൽ അതിപ്പോഴും പഴയ എത്രയോ വർഷങ്ങൾ പഴയ പാട്ടുകൾ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട് പക്ഷേയെങ്കിൽ ഇപ്പം പുതിയ പുതിയ പാട്ടുകൾ തന്നെ ഒരു ലിറിക്സ് പോലും അല്ലെ ഒരു വാക്കുപോലും നമുക്ക് ആ ജസ്റ്റൊന്ന് കേട്ടു അതും മറന്നു പോയി അല്ലാതെ നമുക്കിതൊന്നും ഓർക്കുന്നതേയില്ല അതേ സമയം പഴയ പാട്ട് ഞാൻ താമസിക്കുന്നതെല്ലാം ഇപ്പം രണ്ടു മൂന്നെണ്ണം മാറി മാറി താമസിച്ചെങ്കിലും എല്ലാം ക്ഷേത്രങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഇങ്ങനെ റെക്കോർഡുകളൊക്കെ അമ്പലത്തിലെ രാവിലെ റെക്കോർഡുകളൊക്കെ ഇടുമ്പം ആ ആ പാട്ടുകളൊക്കെ നമുക്ക് ഇപ്പോഴും ഇപ്പം ഇപ്പോഴും കാണാതെ അറിയാമെന്നുള്ളതാണ് പക്ഷെ പുതിയ പുതിയ പാട്ടുകളിറങ്ങുന്നതിൻ്റെ ഒന്നും നമ്മൾക്ക് പക്ഷേ ഇപ്പോഴത് കാണാതെ അറിയത്തില്ല പോരാഞ്ഞിട്ട് അതിപ്പം വലിയ ഓർക്കസ്ട്ര അതുപോലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിട്ട് വലിയ ഇതായിട്ട് പാടുന്നതല്ലാതെ അർത്ഥവത്തായ പാട്ടുകളൊക്കെ തീരെ വളരെ കുറവാണിപ്പം ഇറങ്ങുന്നത് അതേ സമയം പഴയകാല സിനിമാ ഗാനങ്ങളാണെങ്കിൽ ആണെങ്കിൽ തന്നെയും എല്ലാം നല്ല എന്തെല്ലാം അർത്ഥവത്തായത് കേട്ടിരുന്നു പോകും നമ്മൾ ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അത് എന്തെല്ലാം കാര്യങ്ങളാണത് ഇത്ര കാര്യമായിട്ട് അതിൻ്റകത്ത് ഓരോ സംഗീത സംവിധായകന്മാർ രചിച്ച് വച്ചിരുന്നതാണ് അന്നത്തെ കാലത്തെ ഇപ്പോഴത്തെ പാട്ടുകളെന്ന് പറഞ്ഞാൽ എന്തോ എല്ലാം ഓഹ് ഭയങ്കര മോഡേണായിട്ടുള്ള പാട്ടുകൾ ഭയങ്കര ഡാൻസും അങ്ങനത്തെ ഭയങ്കര സൗണ്ടും സൗണ്ട് സിസ്റ്റമൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ മോഡേണായിട്ടുള്ള പാട്ടുകളാണ് ഇപ്പോഴുള്ളത് സമയം പഴയകാലം പാട്ടുകൾ ഭാസ്ക്കരൻ മാഷിൻ്റേയും അതുപോലെയുള്ള ഗാന രചയിതാക്കളുടെയൊക്കെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചും അക്കാലത്തെ ആ കാലയളവിലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരേ പിന്നെ തന്മയത്തത്തോടെയും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലൊക്കെ വരികൾ അതുപോലെ കൃത്യനിഷ്ടയോടു കൂടി വരികളെഴുതി രചിച്ചുണ്ടാകുന്ന പാട്ടുകളായിരുന്നു പണ്ടുള്ള പോലെത്തെ പാട്ടുകൾ ഇപ്പോഴത്തെ പാട്ടുകൾ എന്നാൽ അടിപൊളി തട്ടുപൊളിപ്പൻ പാട്ടൊന്നും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള പിള്ളേരാണെങ്കിൽ തട്ടുപൊളി തട്ടുപൊളിപ്പൻ പാട്ട് അടിപൊളി പാട്ടുകൾ അതൊക്കെയെ ഉള്ളു ഇപ്പോഴത്തേത് പക്ഷേ അതൊക്കെ എന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതിരിപെട്ട ഇപ്പോൾ നൂറ് ശതമാനത്തിലൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേർക്കും പഴയ പഴയ കാലത്തിലുള്ള പഴയ ഗാനങ്ങളോടാണ് കൂടുതലും ഇഷ്ടം കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതു തന്നെയാണ്